എൻ്റെ വീട്ടിലെ മുതിർന്നവർക്ക് പരമ്പരാഗത ഉപദേശം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഈ പശുക്കളെ രീതിയിലാണ് എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് പശുക്കളെ ഇതിൽ അവർ പറഞ്ഞിട്ടുള്ളത് പുല്ല് കൂടുതൽ പുല്ല് കൊടുക്കുക അത് ഞങ്ങൾ പോയി ചെത്തി കൊണ്ടുവന്ന പുല്ല് അത് മുള്ളൊന്നും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ മുള്ളൊക്കെ ഇ മുള്ളൊന്നും ഉണ്ടാവാൻ പാടില്ല പറഞ്ഞിട്ട് പിന്നെ തലേന്നത്തെ കഞ്ഞിവെള്ളം ചോറ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക ആ പിന്നെ എന്താണെന്ന് വെച്ചാൽ വൈക്കോൽ വൈക്കോൽ വൈക്കോൽ നല്ലതാണ് വൈക്കോൽ മേടിച്ച് അത് കൊടുക്കുക പിന്നെ പിണ്ണാക്ക് പിണ്ണാക്ക് ഞങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും അത് പിന്നെ പച്ചക്കറികൾ പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കിയ പച്ചക്കറികൾ കൊടുക്കാം അങ്ങനെ ഒരുപാട് ബാ പിന്നെ പരമ്പരാഗതമായ രീതിയിൽ നമുക്ക് മുതിർന്നവരിൽ നിന്നും ഉപദേശം ലഭിച്ചിട്ടുണ്ട് ഇങ്ങനയൊക്കെ ചെയ്യണം പശുക്കളെ വളർത്തുമ്പോൾ എന്ന് നായ്ക്കളെ കാര്യത്തിലും പൂച്ചകളെ കാര്യത്തിലും ഉണ്ട് അധികമായിട്ടൊന്നും കിട്ടിയിട്ടില്ല അവർ കു പിന്നെ എന്താണ് കഞ്ഞിവെള്ളം ഒക്കെയാണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത് അതിൽ ചോറ് എല്ലാം മിക്സ് ചെയ്ത് വിടും പിണ്ണാക്കൊക്കെ നമ്മുടെ സ്വന്തമായി തേങ്ങേനെക്കൊണ്ട് അരച്ചുണ്ടാക്കണം എന്നൊക്കെയാണ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് പൂച്ചകൾക്ക് പാലും മീനും അങ്ങനെ കൊടുക്കുക മോ പിന്നെ അമിതമായി ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് തന്നിട്ടുള്ളത്